കർഷകരുടെ അവഗണന കൊണ്ടു മാത്രമാണ് ഈ വിലക്കുറവിനും വിലത്തകർച്ചക്കും കാരണമായിരിക്കുന്നത് കർഷകർ എത്രമാത്രം കഷ്ടപ്പെടുന്നു എന്നുള്ളത് രാഷ്ട്രീയ നേതൃത്ത്വം മനസ്സിലാക്കാത്തതു കൊണ്ടും പിന്നെ കർഷകരുടെ കൂടെ നിൽക്കാത്തതു കൊണ്ടുമാണ് ഈ സ ഈ വിലക്കുറവ് ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ കലാകാലങ്ങളിലായിട്ടു വന്യ വികസനങ്ങളോടും മറ്റു ഇഴജന്തുക്കളോടും പടപെട്ടി കൃഷി ചെയ്ത് അദ്ധ്വാനിച്ച് ഉണ്ടാക്കുന്നതിൻ്റെ വില ആ അർഹരായവർക്കും ലഭിക്കാതെ വരുന്നതിനാൽ ഇന്ന് കർഷകർ കട കടത്തിലും കടക്കെണിയിലും ആത്മഹത്യയിലും ലേക്കും തള്ളപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് കർഷകരുടെ കാലങ്ങൾ കാലങ്ങളായി എത്രയോ വർഷങ്ങളായി ഓരോ കർഷകനും ഈ വിലത്തകർച്ചയുടെ പേരും അതിനുള്ള കാരണങ്ങളും ഇതെല്ലാം പറഞ്ഞ് ഓരോ കുടുംബങ്ങളിലും ആ തലമുറ മരിച്ചു പോകുകയല്ലാതെ വേറൊരു മാറ്റവും ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നില്ല സർക്കാരിതിന് മുൻകൈ എടുത്ത് എങ്കിൽ മാത്രമാണ് ഇതിൻ്റെ വിലത്തകർച്ച നമുക്ക് പരിഹരിക്കാനായിട്ട് പറ്റത്തുള്ളൂ നല്ല വിപണികൾക്കാണ് വിപണികൾ നല്ല നല്ല രീതിയിലുള്ള കർഷക ഉത്പന്നങ്ങൾ നൽകി ആ കൃഷിയെ സമൃദ്ധമായി ഗവൺമെൻ്റ് സഹായിക്കുന്ന ഒരു രീതിയിലേക്കു വന്നു എങ്കിൽ മാത്രമാണ് ഇനിയുള്ള കാലങ്ങളിൽ കൃഷിയുമായി മുന്നോട്ടു പോകുവാനായിട്ട് കർഷകന് സാധിക്കുകയുള്ളൂ കർഷകരനുഭവിക്കുന്നതും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതുമായ എല്ലാ വന്യമൃഗ ശല്യങ്ങളും ഈ കൃഷിക്ക് ഈ വിലത്തകർച്ചയാകുമ്പോൾ അവൻ്റെ അവൻ്റെ ഏക ആശ്രയമായ ഈ കൃഷി എന്നന്നേക്കുമായി നിലച്ചു പോകേണ്ടതും അതു വഴി അവനാത്മഹത്യയിലേക്ക് തള്ളപ്പെടാനും സാധ്യത കൂടുതലാണ് അതാണിന്ന് നടന്നു കൊണ്ടിരിക്കുന്നതും ഇനി നടക്കാനിരിക്കുന്നതും ഓരോ വർഷങ്ങൾ കഴിയുന്തോറും കൂടുതൽ കൂടുതലായി വന്നു കൊണ്ടിരിക്കുന്നതുമായ ഈ വിളനാശങ്ങൾ കൃഷി വിലക്കുറവുകൾ ഇതെല്ലാം നമ്മൾ അറിഞ്ഞും അറിയാതെയുമായി ചെയ്തു പോ നമ്മളിലേക്കു വന്നു ചേർന്നു കൊണ്ടിരിക്കുകയാണ് എത്ര മാത്രം കർഷകരോടൊത്ത് സർക്കാരും അതിൽ സംബന്ധമായ എല്ലാ വകുപ്പുകളും കാർഷിക മേഖലനോട് ചേർന്നു നിൽക്കുന്ന അന്നു മാത്രമാണ് വിലത്തകർച്ചയിൽ നിന്നും കാർഷിക അവർക്കുണ്ടാകുന്ന എല്ലാ വിധ ബുദ്ധിമുട്ടുകളിൽ നിന്നും കൃഷിക്കാർ രക്ഷപ്പെടുകയുള്ളു ആഗോള വിപണിയിലേക്ക് നമ്മളുടെ ഉത്പന്നങ്ങൾ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യുവാൻ നമ്മുടെ സർക്കാർ സാധിക്കാതെ പോകുന്നത് കൃഷിക്കാരനു സ്വന്തമായി അങ്ങനെ ചെയ്യുവാൻ മാർഗ്ഗമില്ലാത്തതുമാണ് ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിന്ന ഏറ്റവും വലിയ പ്രശ്നം നല്ല വാണി നല്ല രീതിയിലുള്ള മാർഗ്ഗ നിർദ്ദേശങ്ങൾ നൽകുവാനുള്ളവർ അതു നൽകാതെയും കൃഷിയും നശിപ്പിച്ചു കൊണ്ടുമിരിക്കുകയാണ് കാലാകാലങ്ങളായി പരാതി പ പരാതിയിൽ പറഞ്ഞ തലമുറകളായി ഈ പരാതിക്കൊരു പരിഹാരം കാണാതെയും ഇന്ന് നമ്മുടെ ഈ നാട് കൃഷിക്കാരനും ആയി കൊണ്ടിരിക്കുകയാണ് സർക്കാരിലെ നമ്മൾ തിരഞ്ഞെടുത്തു വിടുന്ന നിയമസഭയിലേക്കും പാർലമെൻ്റിലേക്കും തിരഞ്ഞെടുത്തു വിടുന്ന ജനപ്രതിനിധികളുടെയും ഇച്ഛാശക്തി കുറവാണ് പ്രധാനമായും കാർഷിക വിളകൾ നഷ്ടത്തിൽ വരുവാനും അതിന് വില നല്ല ആവശ്യമായ വില ലഭിക്കാതെ പോകുന്നു കൃഷി ചെയ്യുകയും വില കണ്ടത് കൃഷി ചെയ്ത് കൃഷി ഇറക്കി വന്നു കഴിയുമ്പോൾ അതിന് വില ലഭിക്കാതെ വരിക ഈ വർഷം വിലയുണ്ട് അടുത്ത പ്രാവശ്യം വിലയും ഇല്ലാതെ പോകുക എന്ന എന്നീ പ്രവർത്തനങ്ങൾ ഈ രീതിയിലാണ് മുന്നോട്ടു വന്ന ഏതെങ്കിലും വരും കാലങ്ങളിൽ ഇതിനു നല്ല തിരിച്ചടി ഉണ്ടാകും കൃഷിക്കാർ ഇല്ലാതെയാകും കൃഷിക്കാർ കൃഷികൾ നിർത്തി അവർ മറ്റ് സ്ഥലങ്ങളിലേക്ക് മറ്റിടങ്ങളിലേക്കും മാറിപ്പോകുവാൻ സാധ്യത കൂടുതലാണ് മലയോര മേഖലയെ സംബന്ധിച്ചു കൃഷിയാണ് അവൻ്റെ ജീവനാഡി ഒരു രാജ്യത്തിൻ്റെ വളർച്ച എന്നു പറയുന്ന കൃഷിക്കാരിലാണ് ആ കൃഷി കൃഷിക്കാരന് സഹായിക്കാൻ പറ്റാത്ത നിയമ വ്യവസ്ഥകളും അങ്ങനെ നിയമം ഇന്നു നിലനിൽക്കുന്നു നമ്മൾക്ക് അനുഭവവേദ്യമായ രീതിയിൽ കൃഷികൾ ചെയ്യുവാനും പാരമ്പര്യമായി നടന്ന് നടന്നു വന്നിരിക്കുന്ന പല കൃഷികളും ഈ വിലത്തകർച്ച കാരണം ഇന്നു നാമാവശേഷമായി കൊണ്ടിരിക്കുകയാണ് ഇടുക്കി മേഖലയെ സംബന്ധിച്ചിടത്തോളം ഇഞ്ചി കൃഷി അന്യം നിന്നു പോയൊരു വിളയായി മാറിയിരിക്കുന്നു ഇപ്പോഴടുത്തതായി കുരുമുളക് കൃഷി അത് ഒരു പത്തോ പന്ത്രണ്ടോ വർഷത്തിന് അപ്പുറം കടന്നു പോകാൻ സ സാധ്യതയില്ലാതായിരിക്കുകയാണ് ആകപ്പാടെ അൽപ്പം വിലയുള്ള ഏലത്തിന് ഇനി എത്ര നാളീ വില നിൽക്കുമെന്നറിയില്ല ഇനി എത്ര നാളീ ഏലമുണ്ടാകുമെന്നറിയത്തില്ല ഈ വരൾച്ചക്കും ഇതിന് പരിഹാരം കാണേണ്ടത് ഗവൺമെൻ്റ് ഇത് എത്രയും പെട്ടെന്നു പരിഹാരം കാണണം എന്നു ഞാൻ ആഗ്രഹിക്കുകയാണ് പരാതി പരിഹരിക്കപ്പെടാതിരിക്കുന്നത് അതിൻ്റെ ഉദ്യോഗസ്ഥൻ ഉള്ള ഇച്ഛാശക്തിക്കുറവ് മാത്രമാണ് അറിഞ്ഞും അറിയാതെയും കൃഷികൾ ചെയ്യുകയും അത് എത്രയും പെട്ടെന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ആ വിളകൾക്കാവശ്യമായ നൽകുകയും ചെയ്യാൻ കഴിവില്ലാതെ വരുന്ന ഉദ്യോഗസ്ഥ വൃന്ദങ്ങളാണ് നാടിനു ശാപമായും വിലത്തകർച്ച കൂടുന്നതിൻ്റെ കാരണമായും നില നിന്നു കൊണ്ടിരിക്കുന്നത് കർഷകരുടെയും അവരുടെ കുടുംബത്തിനും ഏറ്റവും കൂടുതൽ നഷ്ടമായിക്കൊണ്ടിരിക്കുന്നതുമായ പ്രവർത്തനം ഇന്നു നടന്നു കൊണ്ടിരിക്കുന്നതും ഈ വിലത്തകർച്ച മൂലമാണ് കർഷകരും നിർത്തിയെങ്കിലോ രസം തീർന്നാൽ